ഹലോ ഇത് ഓല ഊബർ ഓട്ടോ ബുക്കിങ് ചെയ്യുന്ന ഓഫീസല്ലേ ഞാൻ ഒരു ക്യാബ് പറയാൻ വേണ്ടിയിട്ടായിരുന്നു ആ അതെ അതെ ഇവിടെ എൻ്റെ കറക്റ്റ് ലൊക്കേഷൻ വരുന്നത് ഇവിടെ വിമലാ കോളേജ് ഹോസ്റ്റലിൻ്റെ ഫ്രണ്ടിലായിട്ടാണ് വിമലാ കോളേജ് ഹോസ്റ്റലിൽ നിന്ന് പറയുമ്പോൾ ഇവിടെ നിന്ന് എന്താണ് തൃശ്ശൂർ നിന്ന് കുറച്ച് ഉള്ളിലേക്കായിട്ട് വിയ്യൂർ വിയ്യൂർ വിയ്യൂർ തന്നെ വിയൂർ രാമപുരം രാമപുരം ആ ഇവിടെ പോലീസ് സ്റ്റേഷൻ പോലീസ് അക്കാദമിയൊക്കെ ഉണ്ട് ഇവിടെ ആ അതെ അതെ ഇപ്പോൾ ഒരു ക്യാബ് അവൈലബിൾ ആണോ എനിക്ക് അത്യാവിശ്യമായിട്ട് പോവാനായിരുന്നു അതെ എവിടെ പോവണ്ടെ എന്ന് വച്ചാൽ നമ്മുടെ തൃശ്ശൂർ റൗണ്ട് തൃശ്ശൂർ റൗണ്ട് നിന്ന് കുറച്ച് പോയിട്ട് ആ ശോഭാ സിറ്റി മോള് ശോഭാ സിറ്റി മോളിലാണ് എനിക്ക് പോവണ്ടത് അവിടെ അത്യാവശ്യം ആയിട്ട് പോവാനായിരുന്നു എൻ്റെ ഫ്രണ്ട്സും കുറച്ചാൾക്കാരുവുണ്ട് അവിടെ വെയിറ്റ് ചെയ്യുകയാണ് അപ്പം ഒരു ക്യാബ് അവൈലബിലാണോ ക്യാബ് അവൈലബിലാണ് എന്നുണ്ടെങ്കിൽ ഒന്ന് ആ അതെ വിമലാ കോളേജ് വിയൂർ ആ ഷൊർണൂർ റൂട്ടാണ് വരുന്നത് എന്നുണ്ടെങ്കിൽ വിയ്യൂർ കഴിഞ്ഞിട്ട് വിയൂർ സെൻട്രൽ ജയിൽ കഴിഞ്ഞിട്ട് അവിടെ നിന്ന് തൃശൂർ ഗെവൺമെൻട് എഞ്ചിനീയറിങ് കോളേജ് ഇല്ലെ ഗെവൺമെൻറ് എൻജിനിയറിങ് കോളേജിൻ്റെ അവിടെ നിന്ന് കുറച്ച് ഉള്ളിലേക്ക് പോയിട്ടാണ് അ വിമല കോളേജിൻ്റെ തൊട്ട് ഫ്രെണ്ടിലായിട്ടാണ് വിമല ഹോസ്റ്റല് വരുന്നത് ആ ജീസിയുടെ ജേസീൻ്റെ ഒക്കെ തൊട്ട് ഇപ്പുറത്തായിട്ട് ആ ഉള്ളിലേക്ക് പോകണ്ട തൃശ്ശൂർ എത്തണ്ട തൃശ്ശൂർ ടൗൺ എത്തണേൻ്റെ മുന്നെയാണ് ഈ പവർ സ്റ്റേഷൻ പവർ ഹൗസ്സ് പറഞ്ഞ സ്ഥലത്ത് നിന്ന് ഇടതു ഭാഗത്തോട്ട് പോയാൽ മതി എന്താണെന്ന് വച്ചാൽ ആ അതെ അതെ ഞാൻ മാത്രമേയുള്ളു അപ്പോൾ ഇവിടെ ഞാൻ മാത്രമേയുള്ളൂ എന്നെ മാത്രം ഒരാൾ മാത്രമേ ഉള്ളു പിന്നെ അത് കഴിഞ്ഞിട്ട് തൃശ്ശൂർ ചെന്നിട്ട് വേറെ എൻ്റെ കുറച്ച് ഫ്രെണ്ട്സ്സും കൂടെ അവിടെ നിന്ന് പിക്ക് ചെയ്യാനുണ്ട് അ ഇപ്പോൾ ഇപ്പം അവൈലബിൾ ആണോ ഒരു എട്ട് ആൾക്കാർ ഉണ്ടാവും എട്ട് ആൾക്കാരെ കൊള്ളുന്ന രീതിയിലുള്ള അങ്ങനത്തെ ഒരു ക്യാബ് കിട്ടിയാൽ കൊള്ളാമായിരുന്നു ആ അതെ അതെ അത്യാവശ്യം വലിയ ഒരു വണ്ടി കിട്ടിയാൽ കൊള്ളാമായിരുന്നു ഇപ്പോൾ ക്യാബ് അത്രയ്ക്കുമുള്ള എട്ട് ആളെ കൊള്ളാനുള്ള ക്യാബ് അവൈലബിൽ അണെങ്കിൽ ഒരു ഒമ്പതരയുടെ ഉള്ളിലെങ്കിലും വിടാൻ നോക്കണേ അത് ഞാൻ ഇപ്പം കറക്റ്റ് ആ ഇപ്പം ഇട്ന്ന് എക്സാറ്റ് ലൊക്കേഷൻ എന്ന് പറയുന്നത് വിമല കോളേജിൻ്റെ ഫ്രെണ്ടിലായിട്ടാണ് വിമല ഹോസ്റ്റലിൻ്റെ ഫ്രെണ്ടിലായിട്ടാണ് എക്സാറ്റ് ലൊക്കേഷൻ ഇപ്പോൾ ഉള്ളത് അ ഞാൻ പിന്നെ ആ പിന്നേ പേ എങ്ങനെയാണ് ഇതിൽ എങ്ങനെയാണ് പേ ചെയ്യേണ്ടത് ഫോണിൽ പേ ചെയ്യണോ അതോ നമ്മൾ ഡ്രൈവർക്ക് ടാക്സി ഡ്രൈവർക്ക് നേരിട്ട് കൊടുക്കുകയാണോ വേണ്ടത് ആ ഓക്കേ ഓക്കേ പിന്നെ ജീപ്പേ ആയിട്ട് ആണുള്ളത് ജീപ്പേ വഴി ചെയ്യാമല്ലൊ അല്ലെ ഓക്കെ ഓക്കെ ഓക്കെ ഓക്കെ ശരി താങ്ക് യു